വയനാട്ടില് ഭവനനിർമാണത്തിനായിട്ടു ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് കരണമെന്താന്നുവെച്ചാല് പഞ്ചായത്ത് തന്നെ വീടില്ലാത്തവർക്ക് വീട് വച്ച് കൊടുക്കുക അങ്ങനത്തെ പദ്ധതികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് പിന്നെന്താണെന്ന് വെച്ചാല്ലെങ്കില് പുറംനാട്ടിന്നു നമ്മുടെ നാട്ടിലേക്ക് താമ ജോലിക്കായിട്ടു വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടീട്ട് വാടക വീടുകൾ ഒക്കെ ഉണ്ട് എന്നാലും വാടക ഒക്കെ കൂടുതൽ ആണ് അവരുടെ ജോലിയെ സംബന്ധിച്ച അത് കൂടുതൽ ആയിരിക്കും ചിലപ്പോൾ പതിനായിരം പതിനായിരം ആയിരിക്കാം വീടിനു വാടക വരുന്നത് ചിലപ്പോൾ മൂവായിരം അങ്ങനെ വയനാട്ടിൽ വച്ച് അപേക്ഷിച്ചു നോക്കുമ്പോൾ തല പുഴ എസ്റ്റേറ്റില് എസ്റേറ്റിലൊക്കെ ജോലിചെയ്യുന്നവർക്കൊക്കെയാണെങ്കില് അവർക്ക് പാടി പാടി സൗകര്യങ്ങൾ ഒക്കെ ഉണ്ട് അവിടെ എങ്ങനെ ഒരു അയ്യായിരം മൂവായിരം രണ്ടായിരം ഒക്കെയാണ് വാടക വരുക ചില സമ അവരുടെ ഇതായതുകൊണ്ട് തന്നെ പാടിയിൽ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരാണെങ്കില് പാടിയിൽ നില്കുന്നത് ഫ്രീയായിട്ടായിരിക്കും അവര് നിർത്തുക പിന്നെ അങ്ങനെ എന്താച്ചാ പിന്നെ വയനാ പുറം വേറെ ജോലികൾക്കും നോക്കുകയാണെങ്കിലും ഫാമിലിയായിട്ട് വന്നു താമസിക്കുകൊക്കെയാണെങ്കിലും വാടക കൂടുതൽ ആണ് പത്തു പതിനൊന്ന് ഒക്കെ ആണ് വാടക വരുന്നത്